ചലച്ചിത്രഗാനങ്ങളുടെ ഈണത്തിൽ നമുക്ക് ഭജനകൾ ആലപിക്കുന്ന രീതി വ്യാപകമാണ് നമുക്കതിനെപ്പറ്റി വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഏതു മേഖലകളും എനിക്കിഷ്ടമാണ് ഞാൻ സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് ഏതു ഭാഷയാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ ചലച്ചിത്രഗാനങ്ങളുടെ ഈണത്തിൽ ഭജനകൾ ആലപിക്കുന്ന രീതി വ്യാപകമാണ് പക്ഷെയെങ്കിൽ അത്തരം സങ്കീർത്തനങ്ങൾ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത് ആ അത് പിന്നെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല പക്ഷെയെങ്കിൽ എനിക്കതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നല്ല നല്ലതാണത് ഗസലുകളും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്